വാർത്താ മാധ്യമങ്ങളിലെ ടി വി റേഡിയോ മുതലായവ ദൈനംദിന ജീവിതങ്ങളിൽ നമ്മുടെ കൂടെ ഉള്ള ഒരു സംഭവമാണ് എനിക്ക് അതിലിഷ്ടപ്പെട്ട പല പരിപാടികളുണ്ട് അതിൽ ഒന്നാണ് വന്യജീവികളുടെ സംരക്ഷണം ആണ് സംരക്ഷണം അല്ല വന്യജീവികളുടെ നമ്മുടെ ടി വി ചാനലിൽ കാണിക്കുന്ന വന്യജീവികളുടെ പരിപാടികളാണ് വന്യജീവികളുടെ പരിപാടികൾ എന്ന് പറയുമ്പം ചില മനുഷ്യർ കാട്ടിലൂടെ നടക്കുകേം അവ അവയോട് കൂടി ഇഴ ചേർന്ന് ജീവിക്കുന്നതുമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകേം ചെയ്യും ഉദാഹരണമായിട്ട് പറയുക ആണെങ്കിൽ ഒരു കൂ ഒരു ഉൾക്കാടുകളിൽ ചെന്ന് കാട്ടാനേം പുലിയും സിംഹോം മയിലും ഒക്കെ ഉള്ളൊരു കാടുകൾ കാട്ടിൽ ചെല്ലുക എന്ന് പറയുന്നത് തന്നെ ഒരു ധൈര്യത്തിൻ്റെ അടയാളമാണ് ഇത് അവയീ ധൈര്യം ഒന്ന് ഈ ഒരു പരുപാടി നമുക്ക് കാണുമ്പം തന്നെ നമുക്ക് അവരുടെ ജീവിതം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അതായത് കാട്ട് മൃഗങ്ങൾ എങ്ങനെയാണ് അവരുടെ വാസ സ്ഥലം എങ്ങനെയാണ് അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ് എങ്ങനെയാണ് മറ്റുള്ള ജീവികളെ അവർ വേട്ടയാടുന്നത് ഉദാഹരണമായിട്ട് ഒരു മാനിനെ വേട്ടയാടുന്ന സിംഹമോ പുലിയോ ഒക്കെ കാണുമ്പം നമുക്കും എന്താണ് ഇന്നത്തെ തലമുറയിൽ ജീവിക്കുമ്പം എങ്ങനെയാണ് ആ മനുഷ്യ ആ കാട്ട്ജീവികളുടെ ജീവിതം ഇന്ന് കൂടുതൽ കാർട്ടൂണുകളിലോട്ട് ഒക്കെ പോകുമ്പം പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചൂടെ മെ അവരുടെ ജീവിത സാഹചര്യങ്ങള് അറിയാനുള്ള ഒരവസ്ഥയാണിത് പിന്നെ റേഡിയോ പരുപാടികളിലോട്ട് പോവാണെങ്കിൽ നല്ല നല്ല ചർച്ചകൾ അതായത് ഉദാഹരണത്തിന് പാട്ടുകൾ ഇപ്പം ഞാൻ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ ഒരു ഉന്മേഷമായി നൽകുന്നു എൻ്റെ ദിവസം സ്റ്റാ എന് ദിവസം തുടങ്ങുമ്പോൾ തന്നെ രാവിലെ ഒരു ആറ് മണിക്കാണ് ഞാൻ എണീക്കുന്നത് എങ്കിൽ ഒരു ചെറിയ ചെറിയ ഒരു ഗായക ഗാനത്തോടുകൂടി സ് തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും ഒരു മനോഹര ദിവസമായിട്ട് അത് മാറും ഇനി ഇനി അതിനിടക്ക് ചെറിയ ചെറിയ വാർത്തകൾ ഒരു ഏഴ് മണിയാകുമ്പോൾ വാർത്തകൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും രസമാണ് അന്നത്തെ ദിവസത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് ദിവസം അറിയാൻ പറ്റും പിന്നെ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ആണെങ്കിൽ എപ്പോഴും ഈ റേഡിയോയും എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ തുടരുന്നു ഞാൻ നമ്മൾ ഓഫീസിലോട്ട് പോകുമ്പളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളിലോട്ട് പോകുമ്പളോ ഈ ഗാനം നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഉന്മേഷവും കുളിരുമാണ് നൽകുന്നത് ഒറ്റക്ക് ഒക്കെയാണ് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇത് നമ്മുടെ കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു ഏകാഗ്രത ഒഴിവാക്കി കിട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇനി വന് വന്യജീവികളുടെ പരിപാടികളിലോട്ട് വരുമ്പോൾ തന്നെ ഈ ഉൾക്കാടുകളിൽ ചെന്ന് അവരുടെ വാസ സ്ഥലത്ത് ചെന്ന് ഇവരായിരിക്കുകേം അവരെ ചിത്രീകരിക്കാൻ ചെയ്യുന്നത് എന്നില് ഒത്തിരി കൗതുകം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ചെ ഈ പറവകളോ കിളികളോ പരുന്തൊക്കെ വന്ന് പുഴയില് നിന്ന് മീനുകളെ പിടിക്കുന്നതും അവയെ കൊത്തി പെറുക്കി ഉണ്ടാക്കുന്നതും ഒക്കെ വളരെ കൗതുകമുണ്ടാക്കുന്ന ഓരോ കാഴ്ചകളാണ് പിന്നെ സിംഹം എങ്ങനെയാണ് തന്ത്രപരമായിട്ട് അവരെ വേട്ടയാടുന്നുതും ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ വളരെ മനോഹരമാണ് കാട്ട്ജീവി വന്യജീവി എന്തുകൊണ്ടാണ് വന്യജീവിയോട് കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു മൃഗ സ്നേഹിയാണ് അപ്പം കൂടുതലും ഈ മൃഗങ്ങളെ പറ്റി അറിയാനും അതിൽ സമയം ചിലവഴിക്കാനും കിട്ടുന്ന അവസരങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് മൃഗങ്ങളെ മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ അതിലൊരു ഏറ്റവും ഇഷ്ടമായൊരു ജീവിയാണ് സിംഹം ഇല്ലേ കാട്ടിലെ രാജാവെന്ന് നമ്മൾ പറയുന്ന സിംഹം അവർ എത്രത്തോളം ശക്തനാണ് എന്ന് ഈ പരിപാടികളിലൂടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ചാനലാണ് നാഷ്ണൽ ജിയോഗ്രഫിക് ചാനൽ കുട്ടിക്കാലം മുതൽ തന്നെ ഈ നാഷണൽ ജിയോഗ്രഫിക് ചാനല് കാണുന്നത് കൊണ്ട് തന്നെ ഇവരേപ്പറ്റി അറിയാൻ ഇവയെപ്പറ്റിയുള്ള കുറച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടാൻ സാധിച്ചു ഇല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു ഹൈ റേഞ്ച് മേഖലേൽ ആയതു കൊണ്ട് തന്നെ ഒരു പുലി ഇതിലെ നടന്ന് പോയെങ്കിൽ പുലിയുടെ കാൽപ്പാടുകൾ കാണുമ്പം തന്നെ നമുക്ക് ഏറെ കുറെ ഒരു മനസ്സിലാവും ഇത് പശു അല്ലായെന്നും പട്ടി അല്ലായെന്നും ഇത് വന്യ വനത്തിൽ നിന്ന് വന്ന ഏതോ ഒരു ജീവിയാണ് എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ശരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ സംരക്ഷണം എങ്ങനെയാണ് എന്താണ് ഈ എങ്ങനെയാണ് നമുക്ക് ഇവയെ സംരക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവ നാട്ടിലോട്ട് ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യം അവരുടെ ഭക്ഷണ രീതികൾ എന്തൊക്കെ ആണ് അവരെ മനുഷ്യരെ എന്തുകൊണ്ടാണവർ ഉപദ്രവിക്കുന്നത് അവയെ ഉപദ്രവിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എന്താണ് ഇങ്ങനെത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ച അറിയാൻ പറ്റും പിന്നെ ഒ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് തമാശകൾ ഫലിതങ്ങൾ ചിരി കൂടുതലായ്സ് ചിരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആയസുണ്ടാവും എന്നല്ലേ പറയാ അതുപോലെ തന്നെ തമാശകളെപ്പളും കേൾക്കാൻ ഭയങ്കര രസമാണ് ഉദാഹരണത്തിൽ പല പരിപാടികളിലും നർമ്മങ്ങൾ പോല് തമാശകളും ഫലിതങ്ങളും എല്ലാം ചേർക്കുന്നത് വളരെ അതിമനോഹരമാണ് നമ്മുടെ കുറച്ച് അന്നത്തെ ദിവസം നമ്മൾ ബുദ്ധിമുട്ടിയാണ് വന്നത് എങ്കിലും ഈ തമാശകൾ എല്ലാം കേൾക്കുമ്പം നമ്മുടെ മനസ്സിനും ഇതിനും എല്ലാം കുറച്ചൂടെ ഉന്മേഷവും ഫ്രഷ്നസ്സും എല്ലാം കിട്ടുന്ന ഒന്നാണ്